എനിക്ക് വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വെഡ്ഡിങ്ങിൻ്റെ ഒരു ബ്ലൗസ് കിട്ടിയിരുന്നു ആ വെഡ്ഡിങ്ങിൻ്റെ ബ്ലൗസ് ഒത്തിരി ബുദ്ധിമുട്ട് ഉള്ളതായിരുന്നു അവർ നല്ല മോഡൽ ഒക്കെയാണ് എനിക്ക് പറഞ്ഞുതന്നത് അപ്പോൾ വെഡ്ഡിങ്ങിന് വെഡ്ഡിങ്ങ് എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ പേർ കാണുന്നതാണ് എനിക്കും ഒരുപാട് ഇത് കിട്ടുന്നതാണ് അവർ ആ ആ വെഡ്ഡിങ്ങിനത് ആര് തയ്ച്ചു ആര് തയ്ച്ചു എന്നുള്ള ആ ഒരിത് കിട്ടും അപ്പോൾ എനിക്ക് ആ വെഡ്ഡിങ്ങിൽ എനിക്കത് മനോഹരമായിട്ട് പക്ഷേ അത് എനിക്ക് ഒത്തിരി കഠിനമായ പാടായിരുന്നു അതിന് അതിനെ തിരിച്ച് മിറർ ഒക്കെ വെച്ചുപിടിപ്പിക്കണമായിരുന്നു അതിൻ്റെ ബാക്ക് പോർഷൻ ആണെങ്കിലും അതുപോലെ നെ നെക്കിൻ്റെ അവിടെയാണെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടി പക്ഷേ ഞാനത് തയ്ച്ച് കൊടുത്തു അത് എനിക്കതിന് പ്രതിഫലം കിട്ടിയപ്പോഴുണ്ടല്ലോ അതെനിക്ക് മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിഫലവും അതുപോലെ തന്നെ ആ ബ്ലൗസ് സ്റ്റിച്ചിംഗ് കണ്ട് ഒരുപാട് പേർ എനിക്ക് കുറേക്കേറെ പേർ വീണ്ടും വീണ്ടും എനിക്ക് സ്റ്റിച്ചിങ്ങിനായിട്ട് ആൾക്കാർ കുറേ ബ്ലൗസ് തയ്ക്കാനുള്ള കുറേ വെഡ്ഡിങ്ങ് ഓർഡർ കിട്ടുകയും ചെയ്തു അതാണ് എനിക്ക് ഏറ്റവും നല്ല ഇത് ബുദ്ധിമുട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് ആ മിറർ കറണ്ടും കൂടെ പോയ സമയത്ത് മിറർ ഒക്കെ സമയ് വയ്ക്കാനായിട്ട് ഞാൻ കുറേയേറെ കഷ്ടപ്പെട്ടിരുന്നു ഒത്തിരി നേരം ഞാൻ അതിനുവേണ്ടി സമയം ചിലവഴിച്ചു പക്ഷേ ഞാൻ എന്തും വേണ്ടി സമയം ചിലവഴിച്ചോ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി സംതൃപ്തിയും പ്രതിഫലവും എനിക്ക് കിട്ടി അതാണ് അതിൻ്റെ സത്യം